ഒന്ന് ഒന്ന് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രണ്ട് രണ്ട് രണ്ടായിരത്തി അഞ്ച് ആറ് ഏഴ് രണ്ടായിരത്തി പത്ത് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട്